ഹലോ ആ ഹലോ അതെ പറഞ്ഞോളൂ മാഡം ഓക്കെ ആ ഓക്കെ മാഡം അവൈലബിൾ ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാല് ട്രാവൽസ് ഉണ്ട് നാലെണ്ണം ഉണ്ട് മാഡം എങ്ങനെ ആണ് റേറ്റൊക്കെ മാഡം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ മാഡം ആ ഞാൻ ആ ഞാൻ പറയുന്നത് വേറെ ഒന്നും അല്ല മാഡം രാവിലെ ഒരു അഞ്ച് മണി ആവുമ്പോൾ നമ്മൾക്ക് ഇറങ്ങാം മാഡം കാരണം കാരണം നിങ്ങൾക്ക് ആ ഒമ്പത് മണി ആയി പോയാൽ തിരിച്ച് അഞ്ച് മണി ആവുമ്പോൾ ആ സമയത്ത് വരാൻ പറ്റില്ല മാഡം രാവിലെ പോയാൽ നിങ്ങൾ ഒരു ഉച്ച ആവുമ്പം എത്തിയാൽ വൈകിട്ട് എങ്കിലും കയറി ഗുരുവായൂർ ടെംപിൾ കയറി തൊഴുതിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുകയുള്ളൂ ആ ഓക്കെ ഓക്കെ ഓക്കെ ഇപ്പം മാഡം ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് മാഡത്തിന് പറഞ്ഞ് തരാം പത്ത് പേര് അല്ലേ മാഡം നിങ്ങൾ എന്താണ് ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്യണോ അതോ മാഡം ഒക്കെ അവിടെ ഫുഡ് മാഡം പിന്നെ വേറെ ഒരു കാര്യം താമസ സൗകര്യം അത് നമ്മൾ അറേഞ്ച് ചെയ്യണോ അതോ മാഡം വേറെ നോക്കുമോ ആണോ അപ്പം മാഡം നമ്മൾ സാധാരണ ഒരു ഗുരുവായൂർ ട്രിപ്പിന് നമ്മൾ വാങ്ങിക്കുന്നത് ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപ ആണ് നോർമല് നിങ്ങൾ പത്ത് പേരുണ്ടല്ലോ കൊച്ച് കുട്ടികളും എല്ലാം ഉണ്ടല്ലോ മാഡം ആ ആ ഏഴായിരം രൂപ ആണ് ടോട്ടല് നമ്മൾ ഒരു ട്രാവലിന് വേണ്ടി കൊടുക്കുന്നത് പിന്നെ ഫുഡ് റൂമിന് എന്തായാലും മൂവായിരം രൂപ ആവും പിന്നെ നമ്മൾക്ക് താമസം താമസം ഒരു ദിവസത്തേക്ക് ആണെങ്കിൽ ഗുരുവായൂർ സാധാരണ അവർ ആയിരം രൂപ ആണ് വാങ്ങിക്കുന്നത് അത് നമ്മൾക്ക് എന്തായാലും ഫാമിലി ആയിട്ട് ആയത് കൊണ്ട് ഒരു നാല് റൂമ് ആയിട്ട് നമ്മൾക്ക് എടുക്കാം അപ്പ ടോട്ടല് പതിനൊന്ന് ഹലോ ആ പതിനൊന്ന് സംതിംഗ് രൂപ ആവും മാഡം

ഓക്കെ മാഡം എങ്കിൽ ടോട്ടല് ഒരു ടെൻ തരുമൊ ടെൻ മതി ഇപ്പം ഞാൻ പത്തുരൂപ അങ്ങ് കുറച്ചു ടെൻ പത്ത് മതി ആയിരം രൂപ ഞാൻ കുറച്ച് മാഡം ഓക്കെ മാഡത്തിൻ്റെ കോൺടാക്ട് നമ്പറ് ഇത് തന്നെ അല്ലേ മാഡത്തിൻ്റെ പേര് ശ്യാമ എന്ന് അല്ലേ ശ്യാമ ആ ഓക്കെ ഓക്കെ മാഡം എന്തായാലും മാഡത്തിന് എന്നത്തേക്ക് ആണ് വേണ്ടത് ഡേറ്റ് ഒന്ന് പറയാമോ ആ ഓക്കെ മാഡം ഓക്കെ ഓക്കെ മാഡം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ശരി